ഒരുപാട് ചിരിപ്പിച്ച പുസ്തകമെന്ന് പറയുന്നത് കുഞ്ഞ് നാളിലേ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലാണ് ഒരുപാട് വായിച്ച് ചിരിച്ചിട്ടുള്ളത് അതിലേറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് തെന്നാലി രാമൻ്റെ കഥകൾ വായിച്ചിട്ടാണ് പിന്നെ ഉള്ളത് ബോബനും മോളിയും ആണ് ബോബനും മോളിയുടെ ആ ഒരു വീഡിയോസ് യൂട്യൂബിൽ ഉണ്ട് ഞാൻ അത് ഇപ്പോഴും കാണാറുണ്ട് പിന്നെയുള്ളതാണ് തെന്നാലി രാമൻ തെന്നാലി രാമൻ്റെ കഥകൾ ഒരുപാടുണ്ടത് ഭയങ്കര കോമഡിയായിട്ടുള്ളതാണ് പിന്നെയുള്ളത് ഈ ബാലരമ ബാലഭൂമിയിലൊക്കെ ഉള്ള മായാവിയുടെ ഒക്കെ കഥകൾ പിന്നെ സൂത്രൻ്റെ കഥകൾ അങ്ങനെ അങ്ങനെയുള്ള ടിൻറ്റു മോൻ്റെ കഥകൾ ആ ഇതൊക്കെ ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് കഥാകളാണേ പോലും നല്ല കോമഡി ആയിരുന്നു അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ മണ്ടത്തരങ്ങളൊക്കെ കാണുമ്പഴൊക്കെ നല്ല ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അത് വായിച്ച് പിന്നെ ഞാൻ എടുത്ത് പറയുന്നത് തെന്നാലി രാമൻ്റെ കഥകളാണ് പിന്നെ ബോബനും മോളിയും ഇത് രണ്ടും ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്